കേരളത്തിലെ പതിനാല് ജില്ലകളിലും പതിനാല് പതിനാല് തരത്തിലാണ് ഓരോരുത്തരുടെ ആശയ വിനിമയം ഒരാൾ സംസാരിക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരു സംസാരം നമ്മൾ പറയുന്ന ഭാഷകൾ നല്ല പോലെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാകുന്ന സ്ഥലങ്ങളുമുണ്ട് പിന്നെ ഇവിടത്തെ ഒരു ഒരു ഒരു സ്ഥലത്ത് ജനങ്ങൾ അവിടെ അവിടത്ത പഠിച്ച ആ ഇത് അനുസരിച്ച് ഒരു സംസാരം ഇപ്പം ഒരു സ്ഥലത്ത് പറയുന്ന രീതി ഒരു വാക്കിനെ കുറിച്ച് പറയുന്ന രീതി അടുത്ത സം അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമെ മനസ്സിലാകൂ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് മലയാളം തന്നെയാണെങ്കിൽ പോലും പശൂവിനെ നമ്മൾ പശുവിനെ വിളിക്കുന്ന പശുക്കുട്ടിയെ വിളിക്കുന്ന ഭാഷ ക്ടാവ് എന്ന് വിളിക്കുന്ന് തൃശ്ശൂര് ചെന്നാൽ മക്കളെയാണ് പിള്ളേരെയാണ് അത് അങ്ങനെ ആൺ പിള്ളേരെയാണ് ക്ടാവേ എന്നായാലും മക്കളേയെന്ന് വിളിക്കുന്നത് അതൊക്കെ ഒരു വ്യത്യാസമാണ് ഓരോ സംസ്ഥാനത്തിന് ഒരേ പ്രാദേശിക ഭാഷകളും ഓരോ സംസാര രീതികളും വ്യത്യാസങ്ങളാണ് പല ഇപ്പം പല സ്ഥലത്തെയും ഭാഷകൾ പിന്നെ ഗ്രാമറുകളും ഒത്തിരി വ്യത്യാസങ്ങൾ മലയാള ഭാഷയിൽ തന്നെ ഒത്തിരിയേറെ സംസാരം ശ്രദ്ധിച്ചിരുന്ന് മനസിലാക്കേണ്ടതുണ്ട് പെട്ടന്ന് പറഞ്ഞാൽ മനസിലാവുന്നതുണ്ട് പല തരത്തിൽ നമുക്ക്

നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് നമുക്ക് അത് മനസ്സിലാകാൻ ഒത്തിരിയേറെ ഒത്തിരി ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി ആലോചിച്ചു നോക്കാറുണ്ട് ഇതെന്താണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ശരിയാണോ പക്ഷെ അവർ അവിടെ സംസാരിച്ചു ജീവിച്ചു വന്ന ജീവിത രീതിയും നമ്മുടെ സംസാരങ്ങളും ആയിട്ടിപ്പോൾ ഒത്തിരി വ്യത്യാസം വരും അത് നമ്മൾ ആ സ്ഥലത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ പറയുന്നതും ശരിയാണെല്ലോ അവരുടെ അവിടെ അങ്ങനെ ആണല്ലോ സംസാരിക്കുന്ന നമ്മുടെ ഇവിടെ ഇങ്ങനയാണല്ലോ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാറുള്ളു ചില സമയത്ത് നമുക്ക് പറയുന്നതിൽ മിസ്റ്റേക്ക് വന്നാലും ചിലതെല്ലാം ചിലത് മനസ്സിലാക്കിയെടുക്കാനും പറ്റും